പാലക്കാട് ജില്ല എന്നു പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരു ഒരുപാട് മുന്നിട്ടു നിൽക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് പാലക്കാടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കില് സ്കൂൾ ലെവൽ നോക്കുകയാണെങ്കിൽ പാലക്കാട് പാലക്കാട് മിഷൻ സ്കൂൾ ഉണ്ട് അതുപോലെത്തന്നെ പാലക്കാട് മോയിന്സ് ഗവണ്മെന്റ് ഗേള്സ് ഹയര് സെക്കന്ഡറി മോയിന്സ് സ്കൂള് ഉണ്ട് അതുപോലെത്തന്നെ പി എം ജി സ്കൂള് പണ്ഡിത് മോത്തിലാല് നെഹ്റു സ്കൂള് ഉണ്ട് അതുപോലെത്തന്നെ കൊടുവാര ജി എച്ച് എസ് എസ് കൊടുവായൂര് അതുപോലെത്തന്നെ കെ എച്ച് എസ് എസ് കണ്ണാടി സി എ എച്ച് എസ് എസ് സി ഐ ഹൈ സ്കൂള് അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇവയൊക്കെ ഗവൺമെന്റിന്റെ കീഴിലുള്ള സർക്കാർ സ്ഥാപനങ്ങളാണ് അപ്പോൾ അതിന്റേതായ ഫീസും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്ക് കോളേജുകളും മറ്റും നോക്കുകയാണെങ്കില് ഗവണ്മെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാടില് അതിനു ഏറ്റവും ചരിത്ര പാരമ്പര്യമുള്ള ഒരു കോളേജാണ് ഗവണ്മെന്റ് വിക്ടോറിയ കോളേജ് അതുപോലെതന്നെ ഗവൺമെന്റ് ചിറ്റൂര് കോളേജ് അതുപോലെത്തന്നെ നെന്മാറയില് ഉള്ള എന് എസ് എസ് കോളേജ് അതുപോലെത്തന്നെ എസ് എന് കോളേജ് ആലത്തൂര് അതുപോലെത്തന്നെ ഒറ്റപ്പാലത്തുള്ള എന് എസ് എസ് കോളേജ് ഇതൊക്കെ ഗവണ്മെന്റ് കോളേജുകള് ആണ് അങ്ങനെ ഒരുപാട് ഗവൺമെന്റ് കോളേജുകൾ ഉള്ള ഒരു ജില്ലയാണ് പാലക്കാട് ഇവിടുത്തെ ഫീസും മറ്റു കാര്യങ്ങളും ചെറുതായിട്ട് നമുക്ക് കോളേജില് അടയ്ക്കാവുന്ന അല്ലെങ്കില് ജോയിന് ചെയ്യണ സമയത്ത് എന്തെങ്കിലും അഡ്മിഷന് ഫീ ആയിട്ടെന്തെങ്കിലും കുറച്ചു തന്നെ ഉണ്ടാവാറുള്ളൂ പിന്നെ പാലക്കാട് ആ പാലക്കാട് മലമ്പുഴ ആ സൈഡില് ആയിട്ട് ഒരു ഐ ടി ഐ വന്നിട്ട് ഒരു ഐ ടി ഐ ഉണ്ട് അതുപോലെത്തന്നെ പാലക്കാടില് ഏക അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ ഏക ഐ ഐ ടി എന്നു പറയുന്ന പാലക്കാട് ഐ ഐ ടി കഞ്ചിക്കോട് ആണുള്ളത് അതാണ് ഉള്ളത് പിന്നെ കൂടുതല് ആള്ക്കാരും എടുക്കാന് ഉദ്ദേശിക്കുന്ന കോഴ്സുകളും മറ്റും കാര്യങ്ങളും ഒക്കെ ചോദിക്കുകയാണെങ്കില് കൂടുതല് ആള്ക്കാരും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെല്ലാവരും മറ്റേ എം ബി ബി എസ്സിനും മറ്റും നീറ്റ് എഴുതി അങ്ങനെ നമുക്ക് നേഴ്സിംഗ് അങ്ങനെ അതിലോട്ടും ബി എഡിലോട്ടും അതുപോലെ തന്നെ എഞ്ചിനിയറിംഗിലോട്ടും ആണ് കൂടുതല് ആള്ക്കാരും പോകുന്നത് പിന്നെ അതല്ലാണ്ട് ഡിഗ്രി കോഴ്സുകള് എടുക്കുന്ന കുട്ടികളും ഉണ്ട് ഇപ്പോൾ വിക്ടോറിയ കോളേജ് ചിറ്റൂര് കോളേജ് എന് എസ് എസ് കോളേജ് ഇവിടെയൊക്കെ നമുക്ക് ഡിഗ്രി കോഴ്സുകള് എല്ലാം ലഭ്യമാണ്